ഹലോ ആ ഞാൻ എറണാകുളത്തു നിന്ന് വരികയായിരുന്നു അപ്പം വയനാട്ടിൽ ഏതൊക്കെയാണ് ഫുഡുള്ളത് ട്രഡീഷണലായിട്ട് ആണോ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എറണാകുളത്തു നിന്ന് വയനാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് പേര് ഉണ്ടാകുമായിരുന്നു അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ ഞങ്ങൾ നാളെ മറ്റന്നാളാണ് വരിക അപ്പോൾ മറ്റന്നാൾ വിളിച്ച് ബുക്ക് അതുകൊണ്ടാണ് ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത് ആ അതെ അതെ ആ അതുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മറ്റന്നാൾ വരുന്നതിന്

ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ മറ്റേ നോൺവെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ

അങ്ങനെയാണ് ഓക്കെ ഞങ്ങൾ കുറച്ച് പേര് നോൺവെജും ഉണ്ട് വെജിറ്റേറിയനും ഉണ്ട് രണ്ടുമുണ്ട് അപ്പോൾ ചിലവർക്ക് നോൺവെജ് മാത്രമാണ് വേണ്ടത് ചിലവർക്ക് വെജിറ്റേറിയൻ മാത്രമാണ് വേണ്ടത് അപ്പോൾ അവർക്ക് രണ്ടും കൂടി ഉണ്ടാവില്ലേ ആ ഓക്കെ പിന്നെ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ ആ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് അവിടെ കൊണ്ടുത്തരുമോ അങ്ങനെയെന്തെങ്കിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞങ്ങൾ മറ്റന്നാളത്തേക്ക് എന്തായാലും വരാം ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ താങ്ക് യൂ